ഞങ്ങളുടെ പ്രദേശമായ ആരേമൺ വില്ലേജിൽ ലഭിക്കുന്ന പത്രങ്ങൾ മറ്റ് മറ്റ് ഭാഷ പത്രങ്ങളും ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ ടൈംസ് ഓഫ് ഇന്ത്യയുണ്ട് ഹിന്ദുസ്താൻ ടൈംസുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ്സുണ്ട് ഇത്രയാണ് എൻ്റെറിവിലുള്ളത് ഇന്ത്യൻ എക്സ്പ്രസും ടൈംസ് ഓഫ് ഇന്ത്യയും ഞാൻ വായിക്കാറുണ്ട് അതിൽ പ്രാദേശികമായിട്ടുള്ള വാർത്തകളും പിന്നെ ദേശീയ വാർത്തകളും കുറേ അന്തർദേശിയ വാർത്തകളും വരും ദേശിയ വാർത്തകൾ കൂടുതൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം കേരളത്തിലെ ഒരു കാഴ്ചപ്പാട് പ്രാദേശികമായിട്ടുള്ള ഈ വാർത്തകളെല്ലാം പ്രാദേശിക തലത്തിലൊതുക്കി നിർത്തുകയെന്നുള്ള ഒരു അജണ്ട പിന്നെ ഉണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിയിരിക്കുന്നു ദേശീയപരമായിട്ടും അന്തർദേശിയപരമായിട്ടും വലിയ വലിയ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റവും ചെറിയതായിട്ടുള്ളൊരു ഇഷ്യൂവിൽ കുടുക്കി അത് പൊതുജനങ്ങളെ മൊത്തം പിന്നെ ഹൈ ജാക്ക് ചെയ്യുന്ന രീതിയിൽ കൊണ്ട് നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതിനോടെനിക്ക് തീർച്ചയായും യോജിപ്പില്ല ഏതായാലും

ദേശിയ മാധ്യമങ്ങൾ ഇവിടെ ദേശിയ പല തരത്തിലുള്ള വാർത്തകൾ കൊടുക്കണം ഇവിടെ കേരളത്തിലെ ഒരു ട്രെൻഡ് അത് ഈ അടുത്ത കാലത്താണ് ഞാൻ കണ്ടിരിക്കുന്നത് നേരത്തെയൊക്കെ മുൻവർഷങ്ങളിലൊക്കെ ഇത്രയും പ്രശ്നമില്ലായിരുന്നു വാർത്തകളെല്ലാം വരുമായിരുന്നു ഇപ്പോൾ എന്തെല്ലാം വാർത്തകൾ ഉണ്ടെങ്കിലും നിറഞ്ഞിരിക്കുന്ന എന്തെല്ലാം വാർത്തകളുണ്ടെങ്കിലും മനുഷ്യനെ ബാധിക്കുന്ന എന്തെല്ലാം വർത്തകളുണ്ടെങ്കിൽ ഏതെങ്കിലും നിസ്സാര കാര്യത്തിന് ഏതെങ്കിലും ഒരു വളരെ നെഗ്ലിജിബിളായിട്ടുള്ള കാര്യത്തിന് മൊത്തം കേരളത്തിൻ്റെ ശ്രദ്ധ ജനതയുടെ ശ്രദ്ധ അങ്ങോട്ടു മാറ്റികൊണ്ടു പോയി മെയിൻ ഇഷ്യൂസിനെ പ്രധാന വിഷയങ്ങളെ ബൈപാസ് അതായത് പിന്നെ ബൈപാസ് ചെയ്യാനായിട്ട് ഏറെ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ എന്തോ നടക്കുന്നുള്ള കാര്യം കേരളത്തിലെ പല മാധ്യമങ്ങളിലൂടെ നമുക്കറിയാൻ സാധിക്കുന്നില്ല പ്രധാന വിഷയങ്ങളെല്ലാം ഇഗ്നോർ ചെയ്യുന്നു അതിനു വേണ്ടി ശക്തമായ ഒരു ഒരു മാധ്യമ സിൻഡിക്കേറ്റ് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്ക് സംശയം ഉണ്ട് കൂടുതലായി അറിയില്ല പക്ഷെ പ്രകടമായി കാണുന്നത് ഈ വരുന്ന പുതിയ തലമുറക്ക് പോലും ശരിക്കുള്ള വിവരങ്ങൾ കിട്ടുന്നില്ല അന്നേരം അവർ വിചാരിക്കും ഈ പ്രാദേശികമായിട്ടുള്ള അവരുടെ പഞ്ചായത്തിലെയോ അവരുടെ ജില്ലയിലെയോ കാര്യങ്ങൾ തന്നെ ഏറ്റവും വലുത് അതിനപ്പുറത്ത് ലോകം ഇല്ലെന്നുള്ളൊരു ധാരണ ഇവരിലെല്ലാം ഊരി തിരിഞ്ഞ് വരുന്നുണ്ട് അത് നമ്മുടെ ദേശത്ത് നമ്മുടെ സംസ്ഥാനത്തിനെന്തു പറ്റുന്നു എന്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്ന നമ്മളറിയേണ്ട കാര്യങ്ങളെന്തെല്ലാമാണ് ആ പിന്നെ അതൊന്നും പിന്നെ ഇല്ലാതെ അതൊന്നും പുറത്തു വരാതെ പിന്നെ ഏതെങ്കിലും ഒരു കുഞ്ഞ് പിന്നെ ഇത് ഒരു മഞ്ഞപത്രത്തിലൊക്കെ കൊടുക്കേണ്ട രീതിയിലുള്ള വാർത്തകൾ ഉണ്ട് ആ പ്രദേശം മൊത്തം മലിനമാക്കിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും ഇതിനു പറ്റിയ ഏറ്റവും ഒരുദാഹരണം പിന്നെ ഉമ്മൻ ചാണ്ടി ഗവൺമെൻറ്റിനും രാഷ്ട്രീയമായിട്ട് സംസാരിക്കുന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റ് ഭരിക്കുന്ന സമയത്ത് ഒരു സോളാർ ഇഷ്യൂസ് വന്ന് അടിസ്ഥാനപരമില്ലാത്ത ഒരു കാര്യം വാർത്തകൾ സൃഷ്ടിച്ച് ഇരിക്കുന്ന സമയത്ത് കുട്ടനാട്ടിൽ വലിയൊരു പ്രളയമുണ്ടായി പ്രളയത്തിൽ വീട്ടുകാരുടെയും നാട്ടുകാരുടെ എല്ലാം വീടുകൾ മുങ്ങി മൃഗങ്ങളെ എല്ലാം തട്ടിൻ്റെ പുറത്തും പുരയുടെ പുറത്തുമൊക്കെ കയറ്റി ഇരുത്തുന്ന സമയത്ത് അതൊരു വാർത്ത ആയിട്ട് പോലും വന്നിട്ടില്ല അന്നെല്ലാം ഈ ഇതിൻ്റെ ഈ സോളാർ കേസിൻ്റെ അതിൻ്റെ പുറകിൽ ഇരുപത്തി നാല് മണിക്കൂറും ഈ മാധ്യമ പ്രവർത്തനങ്ങൾ എല്ലാവരും മൊത്തം ഊർജ്ജവും ആളുകളും എല്ലാം പിന്നെ പൊതുജനങ്ങളെല്ലാം അത് മാത്രമെ കണ്ടു കൊണ്ടിരുന്നു പക്ഷെ ശരിക്കു നടന്ന കാര്യങ്ങളോ വിപത്തുകളോ നമ്മളെ പൊതുജനത്തെ ബാധിക്കുന്ന കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല പിന്നെ ഈ രീതിയിലുള്ള മാധ്യമങ്ങൾ പിന്നെ അതൊരു വലിയൊരു പോരായ്മ സമൂഹത്തിനെ തന്നെ തെറ്റായ ദിശയിലേക്കു നയിക്കുന്ന രീതികളായിട്ട് എനിക്ക് തോന്നുന്നത് അതിനു വേണ്ടി അതു മാറി വസ്തുനിഷ്ഠമായിട്ടുള്ള നമ്മളറിയേണ്ട വാർത്തകൾ മാത്രം പ്രസിദ്ധീകരിക്കുന്ന ഒരു ഒരു രീതിയിൽ വരണം ഇതിനകത്തെ പിന്നെ ദീപിക ദിനപത്രം ഒരു മോഡലായിട്ട് ഞാൻ കാണുന്നുണ്ട് ദീപിക ദിനപത്രം ദിവസം വായിക്കുന്നുണ്ട് അത് പിന്നെ അതെ രീതിയിൽ ഉള്ള പിന്നെ ഒരു ഒരു പാർഷ്യാലിറ്റി ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഫ്രീ റിപ്പോർട്ടിങ്ങ് കാര്യങ്ങളെന്തു നടക്കണം പൊതുജനങ്ങളെന്തറിയണം എന്നുള്ളൊരു കാര്യത്തിനു വേണ്ടി വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു കാഴ്ച ഒരു കാഴ്ചപ്പാടോടു കൂടി മുന്നോട്ടു പോകണം അതാണ് എൻ്റെ ആഗ്രഹം